ഹലോ ശരി പറഞ്ഞോളൂ എന്താണറിയേണ്ടത് ഓക്കേ അതിപ്പം നിങ്ങളുടെ സ്ഥലമെവിടെയാണ് തിരുവനന്ത ഓക്കെ തിരുവനന്തപുരം അടുത്തു തന്നെ ഒരു ബുക്ക് സ്റ്റാളുണ്ട് നിങ്ങളാദ്യം അവിടേക്കു വന്നിട്ട് ആദ്യം മെമ്പർഷിപ്പാണാദ്യമെടുക്കേണ്ടത് ഓക്കെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വർഷത്തേക്കെടുക്കണമെങ്കിൽ ഒരു വർഷത്തേക്കെടുക്കാം ഇപ്പം ആറ് മാസത്തേക്കാണെങ്കിൽ ആറ് മാസത്തേക്കെടുക്കാം ഒരു വർഷത്തേക്കെടുക്കുമ്പോഴത്തേന് അഞ്ഞൂറ് രൂപയാണ് ആകുന്നത് അതേ സമയം ആറ് മാസത്തേക്കാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാകും ആകുന്നത് ഓക്കെ അപ്പം മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ഏതാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് കൂടിപ്പോയാൽ ഒരു മൂന്ന് മാസം മു സോറി മൂന്നാഴ്ച്ച വരെ ആയിരിക്കും നിങ്ങൾക്കാ എടുക്കുന്ന ബുക്ക് കയ്യിൽ വെച്ചിരിക്കാൻ പറ്റുക ബുക്കിന് ഡാമേജ് വരുത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്നു തന്നെ പൈസ ഈടാക്കുന്നതായിരിക്കും ഓക്കേ ഡാമേജ് വരുത്താതെ തന്നെ ബുക്ക് വായിച്ചിട്ട് തിരിച്ചു കൊണ്ടു ത കൊണ്ടേൽപ്പിക്കേണ്ടതാണ് ഇനി എന്തെങ്കിലുമറിയാനുണ്ടോ ഇവിടെ നമുക്ക് കൂടുതലുള്ളത് ഇപ്പം മെയിനായിട്ട് നമ്മൾ കൊടുത്തു കൊണ്ടിരിക്കുന്നതെന്നു പറഞ്ഞാൽ കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിക്ക് കുറേയുണ്ട് പിന്നതു പോലെ ജനറൽ നോളഡ്ജ് വരുന്ന രീതിക്കും പിന്നെ അ ഓരോരുത്തരുടെ ജീവചരിത്രത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അങ്ങനെ ജീവചരിത്രത്തിനെ ബേയ്സ് ചെയ്തിട്ടാണിപ്പോൾ കുറേ കൂറേ ആത്മകഥകളും അങ്ങനെയുള്ളതിനേപ്പറ്റിയിട്ടാണ് കൂടുതലായിട്ടും ഇപ്പം ഇവിടെ സ്റ്റോക്കിരിക്കുന്നത് നിങ്ങൾക്കേത് ടൈപ്പ് ബുക്കാണാവശ്യമായിട്ടുള്ളത് അതെ ഒരാൾക്ക് ഒ ഒരാൾക്ക് ഒരു തവണ ഒരു ബുക്കേ അവിടെ നിന്നെടുക്കാൻ പറ്റുകയുള്ളു ഓക്കെ അത് അ അതെ അതെ രണ്ടാഴ്ച്ച വരെ നിങ്ങൾക്കത് കയ്യിൽ വെച്ചിരിക്കാം വായിച്ചതിനു ശേഷം അതു തിരിച്ചു കൊണ്ടേൽപ്പിക്കാവുന്നതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈബ്രറിയിൽ തന്നെ വന്നിരുന്നു വായിക്കാനുള്ള സംവിധാനമുണ്ട് അതാകുമ്പോഴത്തേനും നിങ്ങളിതിന് മെമ്പർഷിപ്പ് എടുക്കേണ്ട ആവശ്യം വരത്തില്ല ഇത്ര മണിക്കൂറത്തേക്ക് നിങ്ങൾ വന്നിരുന്നു ലൈബ്രറിയിൽ തന്നെ ഇരുന്നു വായിച്ചിട്ടു പോകാൻ പറ്റുന്ന വിധത്തിലും ചെയ്തിട്ടുണ്ട് കൂടി മനസ്സിലായില്ല എന്താണ് മാഗസിൻ ഞങ്ങളിപ്പം മാഗസിൻ അങ്ങനെ വരുത്തുന്നില്ല നേരത്തെ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം മാഗസിനങ്ങനെ അധികം ആരും വായിക്കാനോ എടുത്തിട്ട് പോകാനോ ഒന്നും താത്പര്യം കാണിക്കാത്തതു കൊണ്ട് പിന്നെ നമ്മൾ മാഗസിൻ വേണ്ടയെന്നു വെക്കുകയായിരുന്നു ചെയ്തത് ഇപ്പം കൂടുതലെല്ലാവരും ആത്മകഥയും പിന്നെ സ്റ്റഡീസിനു വേണ്ടിയിട്ട് പിള്ളേർ വന്നിട്ട് ഡിഗ്രീ അല്ലെങ്കിൽ ആ ഡോക്റ്ററേറ്റിനു പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലവരുടെ ബേസ്ഡ് പുസ്തകങ്ങളൊക്കെയാണ് കൂടുതലും വായിക്കുക അപ്പം ഞങ്ങളതിനേ ബേയ്സ് ചെയ്തിട്ടും പിന്നെ ജനറൽ നോളഡ്ജ് ആണെങ്കിലും ആത്മകഥകളാണെങ്കിലും അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ആ പുസ്തകങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് മാഗസിനൊന്നും ഞങ്ങളിപ്പോൾ അങ്ങനെ വെക്കുന്നില്ല അത് വന്ന് പുതുക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലൈബ്രറിയിൽ വന്നിട്ട് പുതുക്കിയിട്ട് പുതുക്കുമ്പോഴത്തേനും നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ചു പൈസ ഇടാക്കേണ്ടി വരും കുറച്ച് ഒരു പാ ഇരുപത് രൂപയോ മുപ്പത് രൂപയോ ഈടാക്കി എത്ര നാളത്തേക്കാണോ എന്നതിന് അനുസരിച്ചിട്ടായിരിക്കും ചാർജ് വരിക അപ്പം ഒരാഴ്ച്ചക്കാണെങ്കിൽ നിങ്ങൾക്കൊരു മുപ്പത് രൂപ ചാർജ് വരും രണ്ടാഴ്ച്ചത്തേക്കാണെങ്കിലൊരറ് അറുപത് രൂപ ചാർജ് വരും അതെല്ലാം പുതുക്കി വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച്ച കൂടി നിങ്ങളുടെ കയ്യിൽ പുസ്തകം വെച്ചിരിക്കാൻ പറ്റും പക്ഷെ വെച്ചിരിക്കുന്നതിന് നിങ്ങൾക്ക് പുസ്തകത്തിന് ഡാമേജ് ഒന്നും വരുത്താൻ പാടില്ല പേപ്പർ കീറാനോ അല്ലെങ്കിൽ മഷി പടരാനോ അല്ലെങ്കിൽ വെള്ളം നനയാനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല ഓക്കെയല്ലേ ശരി ശരി താങ്ക് യൂ